ഹൈക്ക് ചെയ്യാന് ഞാന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം മലകളാണ് കാരണം ഒരുപാട് അഡ്വസ്റാഞ്ചറസായിട്ട് നമുക്ക് ഹൈക്കിംഗ് നടത്താന് പറ്റുന്ന സ്ഥലമാണ് മലനിരകള് അവിടെ നമുക്ക് ഒരുപാട് രീതിയില് നമുക്ക് ഹൈക്കിങ്ങ് ആകര്ഷകമാക്കാന് സാധിക്കും അതുപോലെ തന്നെ മഞ്ഞുമൂടിയ സ്ഥലങ്ങള് ഇടതൂർന്ന ആ വനങ്ങളിലെ പര്വ്വത നിരകള് സൂര്യാസ്തമയങ്ങള് അവിടെ എത്തിയാൽ നമുക്ക് കാണാന് സാധിക്കും അവിടുത്തെ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ഐ മീന് ഞാന് ഉദ്ദേശിച്ചത് മഞ്ഞുതോരുന്ന പര്വ്വത നിരകള് ഇടതുര്ന്ന വനങ്ങള് പര്വ്വതങ്ങളില് സൂര്യാസ്തമയങ്ങള് ഇവയൊക്കെ നമുക്ക് യൂസ് ചെയ്യാന് പറ്റുന്നത് നമുക്കവിടെ ററ്റെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് നൈറ്റ് ഒരുചെറിയ ക്യാംപ് ഫയര് ഇതൊക്കെ നടത്തി നമ്മുടെ ലൈഫിലെ എല്ലാ സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാം നമുക്കവിടെ കളയാന് സാധിക്കും അതുപോലെതന്നെ എല്ലാ തരത്തിലും ഇത്രയും ദൃശ്യവിസ്മയങ്ങലുടെ നമുക്ക് കണ്ണിന് പുതിയൊരു കാഴ്ച കുളിര്മ നമുക്ക് ലൈഫില് വളരെയധികം ഉപകാരങ്ങള് ചെയ്യുന്നതുമാണ്